ഹലോ നയൻറ്റിൻ എയ്റ്റീസ് റസ്റ്റോറൻ്റെ ആണോ ഓക്കേ ഞാൻ കുറച്ചു മുൻപേ വിളിച്ചിട്ട് കുറച്ചു ഫുഡ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ പത്ത് കിലോമീറ്ററിനുള്ളില് കൊണ്ട് തരാൻ പറഞ്ഞില്ലേ അ ആ അവിടുന്നാന്നേ വിളിക്കുന്നേ

ആ ആ ഓക്കേ ഓക്കേ എന്നാൽ അതൊരു അഞ്ചെണ്ണം പായ്ക്ക് ചെയ്തോളൂ പിന്നെ മധുരമായിട്ടുള്ളത് എന്തൊക്കെ ഉള്ളത് അതായത് സ്വീറ്റ് ആയിട്ടുള്ളത് എന്തൊക്കെ ഭക്ഷണങ്ങൾ ഉള്ളത് കേക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കേക്ക് ഹൽവ അങ്ങനെ എന്തേലും ഉണ്ടോ അങ്ങനെ എന്തേലും അതും അതും കൂടെ അതില് പാക്ക് ചെയ്യണേ പിന്നെ ഐസ്ക്രീം സ്ട്രൗബെറി പിന്നെ വാനില അങ്ങനെയുള്ളത് കുറച്ചു വേണം ആ അതെ അതെ അതിൻ്റെ കൂടെ പായ്ക്ക് ചെയ്താൽ മതി അങ്ങനെയാണെങ്കിൽ ക്യാഷ് ഞാനെങ്ങനെ തരണ്ടേ വേണേൽ ഗൂഗിൾ പേ ചെയ്യണമെങ്കിൽ ഗൂഗിൾ പേ ചെയ്തുതരാം ക്യാഷ് ഓൺ ഡെലിവറി ഗൂഗിൾ പേ എന്നാൽ നിങ്ങളുടെ നമ്പർ ഒന്ന് അയക്കുമോ ഓക്കേ ഓക്കേ ഓക്കേ താങ്ക്യൂ